എൻ്റെ ഒരു അഭിപ്രായത്തിലെന്തെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസം എന്നു വെച്ചിട്ടുണ്ടെങ്കില് അതായത് നമ്മുടെ ജീവിതത്തിലൊരു വലിയൊരു ഘടകമാണ് വിദ്യാഭ്യാസം അപ്പം അതായത് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് ഇന്നത്തെ കാലത്ത്ന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത്ന്നൊക്കെ പറഞ്ഞാൽ വിദ്യഭ്യാസം ഇല്ലെങ്കിലും നമുക്കെങ്ങനെങ്കിലുമൊക്കെ അധ്വാനിച്ചിട്ടാണെങ്കിലും ജീവിച്ചുപോവാം പക്ഷേ ഇന്നത്തെ കാലത്ത്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധ്വാനിക്കുന്ന ജനവർഗ്ഗം വളരേ കുറവാണ് അതായത് കുട്ടികളാണെങ്കിലും എല്ലാവർക്കും നമ്മൾ ഇപ്പൊൾ നമ്മൾക്കെന്നെയാണെങ്കിൽ നമ്മുടെ അച്ഛന്മാരൊക്കെ അധ്വാനിച്ചപോലൊന്നും ഒരിക്കലും അധ്വാനിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പൊൾ വിദ്യാഭ്യാസം ഇല്ലാണ്ട് നമുക്കൊരു കാര്യവും നടക്കൂല ഇപ്പൊൾ ഏതൊരു രാജ്യത്തുപോവാനാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇപ്പൊൾ പത്താം ക്ലാസ് പാസ്സാവാത്ത ആൾക്കാരു വളരെ കുറവാണ് പക്ഷേ പണ്ടത്തൊരവസ്ഥയിൽ അങ്ങനെയൊന്നുമല്ല പത്താം ക്ലാസ് പാസ്സാവാത്ത പാസാവാത്തോരു ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും അവരൊക്കെ ചിലപ്പം വല്ല കോടീശ്വരന്മാരായിട്ടു ജീവിക്കുന്നുണ്ടാവും അന്നത്തെക്കാലത്ത് പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റില്ല വിദ്യാഭ്യാസമില്ലാണ്ട് പിന്നെ വിദ്യാഭ്യാസമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഘടകംന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വളരേ അതായത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ട്ടമായിരിക്കും